ഇത് മരിയ ഫ്ലവേഴ്സ്സല്ലേ ആ ഞാനിങ്ങനെ മങ്ങാട്ട്കരേന്നാണ് വിളിക്കണത് അങ്കമാലി എനിക്ക് ആ റിസപ്ഷന് വേണ്ടീട്ട് കുറച്ചൊരു കല്യാണത്തിൻറ്റൊരു പ്രോഗ്രാമുണ്ട് അപ്പൈനേക്ക് കുറച്ച് ഫ്ളവറ് കാര്യങ്ങൾ വേണമായിരുന്നു ആ പരിപാടി മാർച്ച് മൂന്നാന്തി നമുക്ക് റിസപ്ഷന് വേണം മെയ്നായിട്ട് അതിനാണ് മുഹൂർത്തത്തിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്യുണോള്ളു റിസെപ്ഷനാണ് നമുക്ക് കിട്ടിയേക്കണത് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കണത് ഇവൻട് മാനേജ്മെൻട് ചെയ്ത് കൊടുക്കണാളാണ് അപ്പം റിസെപ്ഷനാണ് നമുക്ക് കിട്ടിയേക്കണത് മുഹൂർത്തം അവർ ആ വേണ്ടത് റോസ് കളർല് റോസും വൈറ്റും കൂടെയുള്ളൊരു കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു തീമാ നമുക്ക് പറഞ്ഞേക്കണത് അപ്പതൻസരിച്ചിട്ട് ഉള്ള ഫ്ളവറ്കൾ ആണ് വേണ്ടത് ഇല്ലാ ഞങ്ങൾ വന്ന് എടുത്തോളാം സാധനം എടുത്തോളാം ആ ആ നിങ്ങൾ നിങ്ങടെയൊരു ലൊക്കേഷനും കാര്യങ്ങളും എനിക്കൊന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുവോ അപ്പം എനിക്കൊന്ന് വന്ന് ആ ഒന്ന് കാണാൻ വേണ്ടീട്ട് നമ്മൾ വേറാളൊക്കെയുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരുമിച്ച് കണ്ടൊന്ന് ആ അതെ അതെ ഏതക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം ആ ആ അതെ അതെ ആദ്യമായിട്ടാണ് ആ ഇല്ലില്ലില്ല ഓക്കെ ഓക്കെ ആ നമുക്ക് ആ ഓക്കെ ആ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരണം രണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് മുഹൂർത്തത്തിൻ്റെ ഇതുങ്കൂടി എടുക്കാം അപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ നമുക്കിച്ചിരി ഇച്ചിരി റിച്ചായിട്ടുള്ളൊരു ഫാമിലീടെയാണ് റി റിസപ്ഷൻ വന്നേക്കണത് അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്കെടുക്കാം

ഓക്കെ ഓക്കെ ആ എന്തായിരുന്നു പേരെന്തായിരുന്നു ഓക്കെ ഓക്കെ ആ അയച്ചെരാം അയച്ചെരാം ശരി ശരി ഓക്കെ ഓക്കെ താങ്ക് യൂ